ഞങ്ങളുടെ പ്രദേശത്ത് വിദ്യാഭ്യാസം നേരിടുന്നതിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന അങ്ങനെ വെല്ലുവിളികൾ നേരിടുന്നില്ല പക്ഷേ ഉണ്ടോയെന്നു ചോദിച്ചാൽ പിന്നെ ഉള്ളതെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ അഭയാർത്ഥികളായിട്ട് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളില്ലേ ആ പിള്ളേർ മിക്കവാറും ജോലിക്കൊന്നും പോകത്തില്ല അമ്മയുടേയും അപ്പൻ്റേയും കൂടെയൊക്കെ അവിടെ പോയിട്ട് ജോലിയൊക്കെ ചെയ്യത്തെ ഉള്ളു അപ്പോൾ അവർക്ക് കുറച്ച് വെല്ലുവിളിയെന്നു പറയണത് അവർക്ക് വിദ്യാഭ്യാസം നേടുന്നില്ല പിന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയണത് ഐ ഡി പ്രൂഫൊന്നും ഇല്ല പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കോളേജിൽ എന്താ സ്കൂളിൽ പോലും പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അത് അതേ ഉള്ളൂ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഇഷ്യു ആണ് മെയിനായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് നേരിടുന്ന കാര്യം വെല്ലുവിളികളായിട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് പിന്നെയുള്ളതെന്നു പറഞ്ഞാൽ പിള്ളേർക്കൊരു പെങ്കൊച്ചെന്നു പറഞ്ഞാൽ നമ്മുടെ അവിടെ ഉള്ളതെന്നു പറഞ്ഞാൽ പിന്നെയുള്ളത് പ്ലസ്ടു ഒക്കെ ആവുമ്പോഴത്തേനും നിർത്തി ഈ പരിപാടികൾ ക്ലാസ്സുകളൊക്കെ നിർത്തി പഠനം നിർത്തിയിട്ട് പിന്നെ ഡിഗ്രി അങ്ങനെയൊന്നും കാര്യങ്ങൾ എടുക്കാതെ പോവുന്നവരൊക്കെ ഉണ്ട് കാരണം എന്നു വെച്ചാൽ അവർക്ക് അവർക്ക് എന്താ അവർക്ക് പിന്നെ വീട്ടിൽ നിന്നൊന്നും വിടാത്ത അല്ലെങ്കിൽ ജോലിയൊക്കെ വേണം ഇനി ഇത് അത്രയൊക്കെ പഠിച്ചാൽ മതിയെന്നുള്ള രീതിയിലൊക്കെ ഉള്ള അങ്ങനെ ഉള്ള ഗേൾസൊക്കെ ഒരു പ്ലസ്ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സൊക്കെ ആവുമ്പോഴത്തേനും വേറെ വല്ല ബ്യുട്ടീഷ്യൻ കോഴ്സോ അല്ലാത്ത വേറെ വല്ല കോഴ്സിനൊക്കെ പോവും അതൊരു ഇതാണ് അങ്ങനെ വേറെ വേറെ കോഴ്സിനു പോകുന്നതുകൊണ്ട് അവർക്ക് ഒരു വിദ്യാഭ്യാസം നേടുന്നതിൽ ഒരു പ്രശ്നമുണ്ട് പിന്നെ പിന്നെ അവർക്ക് ഇൻ്ററസ്റ്റ് ഉണ്ടെങ്കിലും മിക്കവാറും വീട്ടീൽ നിന്നും വിടത്തില്ലല്ലോ അതൊരു പോരായ്മയായിട്ട് കരുതുന്നു നമ്മുടെ പ്രദേശത്തുള്ള കാരണം എന്നു വെച്ചാൽ നമ്മുടെ പ്രദേശം റൂറൽ ഏരിയയാണ് ഒരു ഗ്രാമീണ മേഖല ആയതുകൊണ്ട് അപ്പോഴൊരു വിഷയമുണ്ട് പിന്നെ പിന്നെ ഞാൻ കണ്ടതെന്നു പറഞ്ഞാൽ വേറെ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ മറ്റേ ഈ ഞങ്ങളെ അടുത്തുള്ളൊരു സ്ഥലത്ത് കൂടുതലായിട്ട് ആൾക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാണ് പക്ഷേ അവർക്ക് സാമ്പത്തികശേഷി ഇല്ലാത്തതുകൊണ്ട് പോകാതിരിക്കുന്നുണ്ട് അതായത് പറഞ്ഞാൽ എന്താ സാമ്പത്തികശേഷി ഇല്ലാത്തതുകൊണ്ട് ഒരു പത്താം ക്ലാസ്സുവരെ അല്ലെങ്കിൽ പ്രൈമറി പിന്നെ ഒരു പതിനാലു വയസ്സുവരെ ഉള്ളൊരു കംപൽസറി എഡ്യൂക്കേഷനില്ലേ അത് കിട്ടുന്നുണ്ടെന്നല്ലാതെ അവർക്ക് ഇൻ്ററസ്റ്റ് ഉണ്ടെങ്കിലും പോകാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് കാരണം എന്നു വെച്ചാൽ ഇതില്ലാത്തതുകൊണ്ട് അതാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ളത് ആഹ് അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം